ഹലോ ഇത് പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടയല്ലേ ഇത് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണേ

ആ ആ ആ ആ എന്നാൽ പിന്നെ ആ തേൻവരിക്ക ഒന്ന് എടുത്തോ പിന്നെ അധികം പഴുക്കാത്ത പോലത്തേത് മതി മ് ആപ്പിള് പിന്നെ ഏതെല്ലാം ഉള്ളത് ആ എന്നാൽ പിന്നെ ഒരു ഇറാൻ ആപ്പിള് എടുത്തോ ഒരു അര എടുത്തോ പിന്നെ ആ പച്ച ആപ്പിളും അര എടുത്തോ ആ രണ്ടും കൂടി ആ ആ അത് സാരമില്ല

പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കില് ആളില്ലെങ്കില് പിന്നെ നിങ്ങളിപ്പോൾ കൊണ്ട് വന്നോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വരണങ്കില് പിന്നെ അങ്ങോട്ടേക്ക് വരാം

ഓ അതാണ് നിങ്ങളെ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാഞ്ഞേ അല്ലേ ആ ഞാൻ നേരത്തെ നിങ്ങളെ വിളിക്കുന്നുണ്ട്

ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങള് എന്നാല് സാധനം ആദ്യം എടുത്ത് വെക്ക് ഞാൻ ഒരു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം ആ എന്നാൽ പിന്നെ നിങ്ങള് എടുത്ത് വെക്ക് ഞാൻ എന്നാല് വരാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം അപ്പത്തേക്കും എല്ലാം എടുത്ത് വെക്ക് ഏഹ് ആ പിന്നെ ചക്കം വരിക്കച്ചക്ക ഒന്നും പിന്നെ ആ ഒര് അരകിലോ ഇറാൻ ആപ്പിളും അര കിലോ ആ പച്ച ആപ്പിളും ആ ആ അത് സാരമില്ല ഇറാൻ ആ അത് സാരമില്ല രണ്ടും എടുത്ത് വെച്ചോ ആ ശരി എന്നാല് മ്